ഞാനിതുവരെ പാറക്കെട്ടുകള് കയറിയിട്ടില്ല പക്ഷേ മല കയറിയിട്ടുണ്ട് മല കയറുമ്പോള് അങ്ങനെ വലിയ ഭയമൊന്നും തോന്നിയിട്ടില്ല ഭയത്തിൻ്റെ ഫോബിയായും തോന്നിയിട്ടില്ല മല വളരെ സ്റ്റേബിളായിട്ട് കയറിയാണ് പല കുന്നുകളും മലകളും കയറുന്നത് അതൊരു ഭയപ്പെടുത്തുന്ന അനുഭവം ഇതുവരെ മറികടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എനിക്ക്